ഇപ്പം അതായത് നമുക്ക് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ്സും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഒരുപാട് പ്രകൃതി വിഭവങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഈ മരമൊക്കെ വെട്ടുന്നത് തന്നെ ഒരു ബിസിനസ്സാക്കി എടുക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇപ്പോൾ മരം വെട്ടല് അങ്ങനെള്ള കാര്യങ്ങളൊക്കെ ഒരു ബിസിനെസ്സ് ആ ഒരുമൈൻറ്റിലെടുക്കുന്ന ആൾക്കാരാണ് ഇപ്പം കൂടുതലായിട്ടുള്ളത് അപ്പന്ന് വച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വേണമെങ്കിൽ പറയാം മരം വെട്ടല് അതായത് നമുക്ക് പ്രകൃതിനെ നശിപ്പിച്ചുകൊണ്ട് തന്നെ ബിസിനെസ്സ് കാര്യങ്ങള് ഇപ്പം മരം വെട്ടീട്ട് ഇപ്പം വാതില് കാര്യങ്ങള് അങ്ങനെ ഫർണീച്ചറ് കാര്യം ഇതിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുന്നതാണ് ഫർണീച്ചറ് കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതൊരു ബിസിനസ്സ് തന്നെയാണ് അതിൽ നിന്ന് പൈസയുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം മരത്തില് ജോലി ചെയ്യുന്നവര് അതില് പൈസയുണ്ടാക്കുന്നവര് മുതലാളിമാര് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്നെ ഉള്ളൂ പ്രകൃതി വിഭവങ്ങൾ ഇപ്പം മരം പിന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വെറ്റില അതുപോലെ തന്നെ കാപ്പി കുരുമുളക് ഇതൊക്കെ ഒരു ബിസിനസ് തന്നെയാണ് അതായത് ഇറക്കുമതി കയറ്റുമതിയൊക്കെ ചെയ്യുമ്പോൾ നല്ല പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും അതും ഒരു ബിസിനസ് തന്നെയാണ് അപ്പം നമുക്ക് ബുസിനെസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പ്രകൃതി വിഭവങ്ങളുമുണ്ട് ഒരുപാടുണ്ടാവുന്ന ബിസ്സിനസ് കാര്യങ്ങളൊക്കെയുണ്ട്